ഇ പി എഫൊ പോർട്ടല് സന്ദർശിച്ചിട്ട് പുതിയ ജീവനക്കാരൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസാണൊ ആഡ് ചെയ്യേണ്ടത് അതായത് പുള്ളിയുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത് അയാളുടെ അഡ്രസ്സ് അയാളുടെ ബാക്കിയുള്ള എല്ലാ വ്യക്തിഗത വിവരങ്ങളും അതായത് എങ്ങനത്തെ മോഡ് ഓഫ് തൊഴിലാണ് ആൾടെ ബാങ്കക്കൗണ്ട് ആൾടെ ആധാര് പാൻ നമ്പർ തുടങ്ങിയ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതില് നൽകുക ആൾടെ എല്ലാ പേഴ്സണൽ വിവരങ്ങളും നമുക്കതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിലേക്ക് അത് ആഡെയ്യുകാ